എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബീഫ് പിന്നെ പന്നി അങ്ങനെയുള്ളതൊന്നും കഴിക്കൂല്ല ഞാൻ ആകെ ചിക്കൻ മാത്രമേ കഴിക്കൂകയുള്ളു അപ്പോൾ എനിക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഏതൊരു കടയിൽ പോവുകയാണെങ്കിലും ആദ്യം ഇങ്ങനെ ഹസ്ബന്റിനോട് പറയും അത് വേണം ഇതു വേണം എന്ന് പക്ഷേ അവിടെ എത്തിയിട്ട് അവരിങ്ങനെ ചോദിക്കൂമ്പോൾ ഞാൻ ലാസ്റ്റ് ബിരിയാണിയിലേക്ക് തന്നെ ആണ് എത്തുക കാരണം എന്നുവെച്ചുകഴിഞ്ഞാല് എനിക്ക് അത്ര ഇഷ്ടമാണ് ബിരിയാണി പിന്നെ ബിരിയാണിയുടെ ഒരു ഫ്ലേവർ ഒരു വേറൊരു ഇത് തന്നെയാണ് നമുക്കിപ്പോൾ വീട്ടിൽ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ വേറൊരാള് ബിരിയാണി കൊണ്ടുതന്നാൽ നമ്മളതേ കഴിക്കുകയുള്ളു കാരണം അത്രക്കും ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് എൻ്റെ ഒരു ഇതില് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് ബിരിയാണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് എവിടെനിന്ന് കഴിയ്ക്കാനാ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബിരിയാണി ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് അവടെനിന്നാണ് ഞാൻ കൂടുതലായിട്ട് കഴിക്കാറ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അടിപൊളിയാണ് എല്ലാ തരമുള്ള ബിരിയാണിയും ഉണ്ട് അതായത് ബിരിയാണി നല്ല അടിപൊളി ചട്ടീലൊക്കെ ആക്കിയിട്ട് കുറേ ഉണ്ടാവും നമ്മളത് പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും നമുക്ക് തിന്നാലും തിന്നാലും അതായത് നമ്മള് ആദ്യമൊക്കെ ആക്രാന്തത്തോടെ തിന്നും പക്ഷേ ഒരര ഭാഗമാകുമ്പോഴത്തേയ്ക്കും നമുക്ക് മതിയാവും കാരണം അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് മതിയാകും പഷെ അത്രയ്ക്ക് ടേയ്സ്റ്റാ നമ്മള് പിന്നേയും പിന്നേയും പിന്നേയും പോയി ഇങ്ങനെ തിന്നും